എന്നെ ഒരുപാട് ചിരിപ്പിച്ച പുസ്തകം എന്ന് പറഞ്ഞാൽ പഴയൊരു മലയാള ഫലിത പുസ്തകാണ് അത് നമ്മുടെ മെയിന് ആയിട്ട് അതില് പറയണത് പറഞ്ഞു കഴിഞ്ഞാല് കുറേ കഥകളാണ് ആ കഥകളിപ്പോൾ ഒരാളുടെ ജീവിത രീതി ഇപ്പോൾ ബുക്കിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ തെന്നാലി രാമന് കഥകള് അതൽ തെന്നാലിരാമനെന്ന് പറയണ ഒരാളെ കുറിച്ചിട്ടാണ് പറയണത് അയാളുടെ അയാളുടെ ജീവിതകാലഘട്ടം അയാൾ എങ്ങനെയാണ് ജീവിച്ചത് അയാളുടെ ജീവിതത്തില് നടന്ന സംഭവങ്ങൾ അതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ് അയാളൊരു രാജാവിന്റെ സഭയിൽ വിദൂഷകന് അങ്ങനെ ഒരു ഒരാളായിരുന്നു ആളോരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം എന്തെങ്കിലും ഒരു അയാളെന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ബാക്കിയുള്ള ആള്ക്കാർക്ക് ഒന്നും ഇപ്പോൾ ആ സഭയിലെ ബാക്കിയുള്ള ആള്ക്കാര്ക്ക് ഒന്നും അയാള്ക്ക് അത്ര ഇഷ്ടമല്ല അയാളെ അത്ര ഇഷ്ടമല്ല അപ്പോൾ അയാള്ക്ക് എങ്ങെനെയെങ്കിലും എല്ലാ ദിവസവും ഓരോ പണിയും കാര്യങ്ങളൊക്കെ അഥവാ എന്തെങ്കിലും ആളെ താഴ്ത്തി കെട്ടാന് ഉള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അങ്ങനെ പക്ഷേ എല്ലാ ദിവസവും തെന്നാലിരാമന് അതിൽ നിന്നൊക്കെ അതിവിദഗ്ദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെടും ഇപ്പോൾ എന്താ പറയുക അവരൊരു ഓരോ ദിവസം ഓരോ ഓരോ കാര്യങ്ങൾ ഓരോ കേസുകളായിട്ടോ അല്ലെങ്കില് ഇങ്ങനെയൊക്കെ കൊണ്ടുവരും അപ്പം അവർ ഇയാൾ അതിൽ നിന്നൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് ഇയാളുടെ കഴിവും കാര്യങ്ങളൊക്കെ വച്ചിട്ട് ഇയാള് അതിനെയൊക്കെ ഓവര് തരണം ചെയ്യും പക്ഷേ അതെന്താ വച്ചു കഴിഞ്ഞാൽ അതിൽ വരണത് ആൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇച്ചിരി അതിൽ ചെയ്യുന്ന രീതി ഭയങ്കര സിംപിളായിരിക്കും അത് നമുക്ക് കുറേ ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ആ ചെയ്യുന്നത് എന്താണെന്നു ഉള്ളത് നമുക്ക് ബുദ്ധിപരമായിട്ട് ഭയങ്കര ശരിക്കും ആലോചിച്ചുനോക്കിക്കഴിഞ്ഞാല് ഒരുപാട് ആശയങ്ങള് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരേ ഒരേപോലെ ചിന്തിക്കാനും ചിരിക്കാനും കഴിവ് തരുന്ന ഒരു പുസ്തകമാണത് അപ്പോൾ അതിൽ ഓരോ കഥയും ഇപ്പോൾ എന്ത് കഥ എടുത്താലും അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും അതുപോലെ അതിനെക്കുകുറിച്ച് നമുക്ക് വായിച്ചു രസിക്കാം നമ്മുടെ സമയം പോകുന്ന പോലെ ചിരിക്കാന് ഉള്ള പറ്റിയ കഥയും കാര്യങ്ങളും ഒക്കെ ആ പുസ്തകത്തിലുണ്ടാകും